പാലക്കാട് ജില്ലയില് നമുക്ക് ആശുപത്രികള് നോക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ ആശുപതികൾ ഉണ്ട് ജില്ലാ ആശുപത്രിയുണ്ട് മെഡിക്കൽ കോളേജുണ്ട് പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ആശുപത്രികള് ടൗൺ ഏരിയയിലുണ്ട് അല്ലാണ്ട് കുറെ സ്ഥലങ്ങളുള്ള ആശുപത്രികള് ചെറിയ ചെറിയ ആശുപത്രികളായിട്ട് അങ്ങനെയുണ്ട് പിന്നെ മണ്ണാർക്കാട് ഭാഗത്ത് പിന്നെ അങ്ങനെ അതായത് ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് ആശുപത്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജില്ലാ ആശുപത്രി വന്നിട്ട് പാലക്കാട് ടൗൺ ഏരിയ ആ ഭാഗത്താണ് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ എൻഎച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ മെഡിക്കൽ കോളേജ് പുതിയതായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാലക്കാട് വേറെ നമുക്ക് ഒറ്റപ്പാലം ഭാഗത്താണ് ഈ പികെ ദാസ് ഹോസ്പിറ്റല് അതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങനെയുണ്ട് പിന്നെ ക്ലിനിക്കുകൾ ഒട്ടനവധി ക്ലിനിക്കുകളും വൈകുന്നേരം നാല് മണി തൊട്ട് അഞ്ച് മണി വരെ അങ്ങനെയുള്ള സമയം ചിലപ്പോൾ നാല് തൊട്ട് ഏഴുവരെ അങ്ങനെ കുറെ ഡോക്ടർമാർ അങ്ങനെയും നോക്കുന്നുണ്ട് പിന്നെ അഹല്യ പോലത്തെ ആശുപത്രികളുണ്ട് അപ്പോൾ പ്രമേഹത്തിൻ്റെ മാത്രം ആയിട്ട് ചെയ്യാൻ ഉള്ളത് പിന്നെ കണ്ണാശുപത്രികളുണ്ട് അതായത് കണ്ണിൻ്റെ അസുഖങ്ങൾ മാത്രം ഇതാക്കാൻ വേണ്ടിട്ടുള്ള അങ്ങനത്തെ ആശുപത്രികള് അങ്ങനെ ഏകദേശം നമ്മുടെ പാലക്കാട് ജില്ലയിൽ നോക്കി കഴിഞ്ഞാൽ കുറെ അധികം ആശുപത്രികളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്